എനിക്ക് അങ്ങനെ റിയാലിറ്റി ഷോസിലൊന്നും പാടാനും എന്ന് ആഗ്രഹം ഒന്നും ഇല്ല എനിക്ക് നമ്മടെ നാട്ടില് നടക്കുന്ന സ്റ്റേജിലോ അങ്ങനെ ഉള്ള ഇടത്തൊക്കെ പോയി പാടാൻ ഇഷ്ടാമാണ് പിന്നെ വീടുകളിൽ വീട്ടില് എന്തെങ്കില് ഇപ്പൊ കുടുംബസംഗമം അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മടെ ആൾക്കാര് മാത്രം കേൾക്കുന്നിടത്ത് പാടാൻ ഇഷ്സ്മാണ് പൊതുവേദിയിൽ പോയി അങ്ങനെ പാടണമെന്നാഗ്രഹം അങ്ങനൊന്നുമില്ല വലിയൊരു പാട്ടുകാരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ പാട്ട് പാടും പാട്ട് പാട്ട് ആസ്വദിക്കാനും ഇഷ്ടാവാണ് പാട്ട് പാടാനും ഇഷ്ടാണ്